എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കൂളർ ആണ് അപ്പോൾ കൂളർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാലാവസ്ഥയാണ് അപ്പം നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂളർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കൂളർ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു അതായത് ഇപ്പം ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് റൂമിലൊക്കെ നല്ല കൂൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ കൂളർ ആണ് ഉപയോഗിക്കുന്നത് ഈ കൂളറിൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള ക്യൂബ് ഇല്ലേ അതായത് ഐസിൻ കട്ടകൾ അത് നമുക്ക് അതിനകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള കാറ്റ് എ സിയിൽ ഇരിക്കുന്നത് പോലെ നമുക്കൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കറൻറ് ചാർജ് വലിയ രീതിയിൽ ഉണ്ടാവില്ല അപ്പം അതിനാണ് കൂളർ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂളർ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയ്റ്റ് കൂടുതലായത് കൊണ്ട് ഇപ്പം നമുക്ക് വേറെ ഒരു റൂമിലേക്ക് കൊണ്ട് പോകാനൊക്കെ ലേശം പാടുള്ള ഒരു കാര്യമാണ് മറ്റേ ഫാൻ ഒക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ വയ്ക്കാം ഇതിപ്പം രണ്ട് കയ്യും ബലം പിടിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥയായിട്ടാണുള്ളത് അപ്പം അതൊരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്